ഹലോ പാലില് പാലില് ഫുള് മായമാണല്ലോ ഞാൻ പാൽ വാങ്ങുന്നയാളായിരുന്നു ആ പാലിന് ഫുള്ളും ഒരു കൊഴുപ്പില്ലാത്തതൊക്കെയാണ് പാല്

ആ മിൽമേൻ്റെ പാല് പാലിന് കൊഴുപ്പില്ല ഇതു ഓരോ കെമിക്കലൊക്കെയാണ് ചേര്ക്കുന്നത് നിങ്ങളതൊക്കെ നോക്കേണ്ടെ

ഞാനിന്നലെ ആ പിന്നെയത് രാവിലെ കൊച്ചിന് കൊടുക്കാൻ നോക്കുമ്പോഴുണ്ട് പാലില് ഫുള് എന്തൊക്കെയോ കെമിക്കലും പാലിന് കൊഴുപ്പില്ല അങ്ങനെയൊക്കെയുള്ള അവരെ വിളിച്ചപ്പോള് ഈ തന്നയാളെ വിളിക്കാനാണ് പറഞ്ഞത് ഇത് നമ്മള് വിളിച്ചു വിളിച്ചപ്പോള് പറഞ്ഞു നിങ്ങളെ കസ്റ്റമറിനെ വിളിച്ചുനോക്കാനാണ് പറഞ്ഞത്

കംപ്ലയിൻറ്റാണോ ആ ഓഫീസില് വിളിച്ചു ഓഫീസിൽ വിളിച്ചപ്പോള് പറഞ്ഞു നിങ്ങള് കസ്റ്റമറിൻ്റെയടുത്തുള്ള കംപ്ലൈൻ്റാണെന്ന് അല്ലാതെ ഇവിടെനിന്ന് വരുന്നതല്ല ഇവിടെ നിന്ന് നല്ല സാധനം നല്ല ഒർജിനൽ സാധനമാണ് കൊടുത്തുവിടുന്നത് കസ്റ്റമറിൻ്റെയടുത്ത് പഴക്കമുള്ള സാധനമായിരിക്കും അങ്ങനയാണ് വരുന്നതെന്ന് പറഞ്ഞു ആ ഡേറ്റെല്ലാം കറക്റ്റാണ് അവര് അവര് പറഞ്ഞു നിങ്ങൾ കസ്റ്റമര് അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനത്തെ സാധനങ്ങള് നല്ല സാധനങ്ങളെക്കെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു

അത് പൊട്ടിക്കാനും കുഴപ്പമുണ്ടോ

പിന്നെ അതിനകത്തൊരു എന്താണ് ഒരു സാധനം അതിൻ്റെയുള്ളില് വേറെയെന്തൊക്കെയോ വേസ്റ്റൊക്കെ കിടപ്പുണ്ടായിരുന്നു പാല് ബക്കറ്റിൻ്റെയുള്ളില്

അത് അത് നിങ്ങള് നോക്കേണ്ടെ എന്നാല് അതൊക്കെ അതുപോലെ ആ പാക്കറ്റില് അതൊക്കെ എക്സ്പൈറി ഡേറ്റൊക്കെ നോക്കേണ്ടെ നിങ്ങള് അതൊക്കെ നിങ്ങള്ക്ക് നോക്കാനുള്ള ഇതില്ലേ അതൊക്കെ ആ

ആ ഇത് കൊച്ചിന് കൊടുക്കാനുള്ള പാലാണ് അതുകൊണ്ടാണ് പറഞ്ഞത്

അപ്പ നാളെ പോയാല് നാളെ ഓഫീസുണ്ടാകുമോ ആ പിന്നെന്താണ് എല്ലാ ദിവസവുമുണ്ടോ നിങ്ങളാണോ കടേൻ്റെ ഉടമ നിങ്ങളാണോ കടേൻ്റെ ഉടമ നിങ്ങളാണോ ആ അ ആ

ആ അവരെ ഓഫീസില് വിളിച്ചപ്പോള് പറഞ്ഞു നിങ്ങള് കടയിലേക്ക് വിളിച്ചിട്ട് കടയില് വിളിച്ചുപറഞ്ഞിട്ടേ കാര്യമുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് വിളിച്ചു നോക്കിയത്

ആ ആയിക്കോട്ടെ